ആ ഇതിൽ ഗുരുക്കന്മാർ എന്നു പറയുമ്പോൾ ഞങ്ങൾ നിർണം ഭദ്രാസനത്തിൽ പെട്ടതാണ് ഞങ്ങളുടെ നിർണം ഭദ്രാസനത്തിൻ്റെ അധിപനായിരുന്ന ഒസ്താത്യോസ് തിരുമേനി ഞങ്ങളുടെ പിതാവാണ് ഞങ്ങളുടെ തിരുമേനി അപ്പച്ചനാണ് ആ അപ്പച്ചൻ ഞങ്ങൾക്കു വേണ്ടിയിട്ട് ഒരുപാട് മാതൃകകൾ കാണിച്ചു തന്നിട്ടുണ്ട് അതായത് അശരണരായിട്ടുള്ളവരെയും പാവപ്പെട്ടവരായിട്ടുള്ളവരെയും എല്ലാം സഹായിക്കാം എന്നുള്ളതായിരുന്നു ആ തിരുമേനിയുടെ പ്രവർത്തിയും ഉദ്യമമെല്ലാം ഇവിടെ പനയം പാല് കാരുണ്യഭവൻ എന്നൊരു ആലയം ഉണ്ടാക്കി അവിടെ അശരണാരുമില്ലാത്ത അനാഥരായിട്ടുള്ള കുഞ്ഞുങ്ങളെ ഏറ്റെടുത്തു വളർത്തുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കി അവിടെ അനേകം കുട്ടികളെ താമസിപ്പിക്കുകയും അവിടെ വിദ്യ അഭ്യസിപ്പിക്കുകയും അവരെ ഓരോ നിലയിലും പഠിക്കാൻ പ്രാപ്തരാക്കി പിന്നെ സമൂഹത്തിലേക്ക് വിടുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം ഇന്നും അത് നടന്നു വരുന്നു ഇന്നിപ്പോൾ അവിടെ അനേകം പ്രായമായ പുരുഷന്മാരെ താമസിപ്പിച്ച് സംരക്ഷിച്ചു വരുന്നു അതു പോലെ തന്നെ കുഷ്ഠരോഗികളായ ആൾക്കാരുടെ കുഷ്ഠമില്ലാത്ത കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തി താമസിപ്പിച്ചു പഠിപ്പിച്ച് അവരെ നല്ല രീതിയിലാക്കി തീർക്കുന്നതിന് വേണ്ടി യാച്ചാരം എന്ന സ്ഥലത്ത് ഒരു സ്ഥാപനം ഉണ്ടാക്കി അവിടെ അനേകം പേർ അനേകം കുഷ്ഠരോഗികളുടെ കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തി അവരെ നല്ല രീതിയിൽ കൊണ്ടു വരാനായിട്ട് ഇന്നും സഭ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു അതിനൊക്കെയും മാർഗ്ഗ ദർശമായിട്ടുള്ളത് ഞങ്ങളുടെ ഈ തിരുമേനിയാണ് ഞങ്ങൾ നല്ല രീതിയിൽ അതിനു വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നു കാരണം നമ്മുടെ സമൂഹത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരെയും അശരണായിട്ടുള്ള ആൾക്കാരെയും ബുദ്ധിമുട്ടുന്നവരെയും രോഗത്തെ രോഗാവസ്ഥയിൽ കഴിയുന്നവരെയും ഒക്കെ നല്ല രീതിയിൽ കൊണ്ടു വരാൻ വേണ്ടിയിട്ട് തിരുമേനി ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനുള്ള മാർഗ്ഗദർശനം കാണിച്ചു തന്ന് അതിനുള്ള വഴികൾ ഒരുക്കി തന്ന് ഇന്നും ഞങ്ങളെ അതിൻ്റെ രീതിയിൽ കൂടി വഴി നടത്തുകയാണ് അതുപോലെ ക്യാൻസർ വന്ന് ഭാരപ്പെടുന്ന ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ക്യാൻസർ കെയർ സെൻ്ററുകൾ ഉണ്ടാക്കിയിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇടവകയെ തോറും ആൾക്കാരെ അതിനു വേണ്ടിയിട്ട് സന്നദ്ധരായിട്ട് ഞങ്ങളെല്ലാം അതിനു സഹകരിച്ചു കൊണ്ടേയിരിക്കുന്നു അങ്ങക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ മാർഗ്ഗദർശനം കാണിച്ചു തന്ന ഒരു തിരുമേനിയാണ് മാറോസ്താതിയോസ് തിരുമേനി